പാനി ആണ് രണ്ട് ദിവസമായിട്ട് പനി ആയിരുന്നു അ വീട്ടില് ഹസ്ബൻറ്റിന് വന്നിരിന്നു അതെ അത് രണ്ട് ദിവസം രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് കുറച്ച് ജലദോഷം തുമ്മൽ ഒക്കെ ആയിരുന്നു ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ അ മേല് വേദന ഉണ്ട് പനിച്ചപ്പോൾ മേല് വേദന ഉണ്ടായി ഇന്നലെ പാരസെറ്റമോള് കഴിച്ചായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ കുറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ പിന്നേയും പനി അപ്പോൾ ചെറിയ കുട്ടി ഉണ്ട് അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അ ഓക്കെ തല ഒക്കെ കുളിക്കാൻ പറ്റുമോ അല്ല അമ്മയൊക്കെ പറയും തല കുളിക്കരുത് തല ചെറിയ കൊച്ചാണ് എട്ട് മാസമായിട്ടൊള്ളു അല്ല ഫീഡ് ചെയ്യണ്ടേ

ചുമയുണ്ട് പനി വന്നതിന് ശേഷം ഒരു ദിവസം മഴ നനഞ്ഞിരുന്നു അതേ പിന്നെയാണ് ജലദോഷം വന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് ചുമ ഉണ്ട് പിന്നെ ഇന്നലെത്തൊട്ടാണ് പനി തുടങ്ങിയത് പിന്നെ കൊച്ച് ഉള്ളതുകൊണ്ട് വേഗം കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്

ഓക്കെ മാഡം